കർഷക ആത്മഹത്യ അതല്ലെങ്കിൽ കർഷകരുടെ ഇടയിൽ കാണാൻ വരുന്ന കണ്ട് കിട്ടുന്ന കണ്ട് വരുന്ന ആത്മഹത്യാ ശ്രമങ്ങളുടെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ വരുമാനത്തിലുള്ള കുറവ് തന്നെയാണ് എത്രയൊക്കെ പറഞ്ഞാലും കർഷകർ എത്രയൊക്ക അവരുടെ പാടത്ത് എത്രയൊക്ക ഉൽപ്പന്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ സക്സസാണ് അവരുടെ പണിയെത്ര ഒക്കെ കഷ്ടപെട്ടിട്ട് ആണ് അവർ ചെയ്യുന്നത് എത്രയൊക്കെ എന്നും അവർക്ക് പണിയുണ്ട് എന്തൊക്ക പറഞ്ഞാലും ഒരു കർഷകരുടെ അല്ലെങ്കിൽ ഒരു കർഷകൻ്റെ ഒരു ആളുടെ ഏവറേജ് വരുമാനം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു അത് ഒരിക്കലും ഒരു വലിയ തുകയല്ല അതൊരു സാധാരണ തുക മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു കർഷകൻ്റെ വീട്ടിലെ അവർ ഏറ്റുമുട്ടുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് വച്ചാൽ അത് അവരുടെ കാശില്ലായ്മ് അല്ലെങ്കിൽ വരുമാനക്കുറവ് തന്നെയായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് മിക്ക കർഷകരുടെ ഇടയിലും അല്ലെങ്കിൽ മിക്ക കർഷകരുടെ വീട്ടിലും കാശില്ലാത്തത് കൊണ്ടുള്ള ആത്മഹത്യകൾ ഇന്നും ഇവിടെ തുടരുന്നത് പണ്ട് തൊട്ടേ തുടരുന്ന തുടർന്ന് വരുന്ന ഒരു ഇതാണ് കർഷകരുടെ ഇടയിലുള്ള ആത്മഹത്യാ ശ്രമങ്ങളും ആത്മഹത്യകളും ഇതിൻ്റെ എല്ലാം കാരണവും ഈ കാശില്ലായ്മ തന്നെയാണ് അവർക്ക് ഒരു പെട്ടന്ന് ഒരു കാര്യം വരുമ്പോൾ ഒരു കല്യാണമായിക്കോട്ടെ ഒരു വീട്ടിൽ ഒരു ഒരു പരിപാടി ആയിക്കോട്ടെ എന്ത് തന്നെ വന്നാലും അവർക്ക് അവരുടേതായ കാശെടുത്ത് നേരിടാൻ അവർക്ക് പലപ്പോഴും സാധിക്കാറില്ല കാരണം അവരുടെ വരുമാനം എപ്പോഴും കുറച്ചേ ഉണ്ടാവുകയുള്ളു ഇതിനു നമുക്ക് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരു മുൻകരുതൽ എന്ന് പറയാവുന്നത് കാശ് വായ്പ കൊടുക്കാവുന്ന കുറച്ച് കാശ് വായ്പ കൊടുക്കാവുന്ന ആൾക്കാർ വരുക അല്ലെങ്കിൽ സർക്കാർ മുഖേന മുഖേന ഒരു കാശ് വായ്പ കൊടുക്കാനുള്ള ഈ സ്ഥലങ്ങളും അങ്ങനത്തെ ഓരോ വില്ലേജ് ഓഫീസുകളുമൊക്കെ വരുക എന്നുള്ളതാണ് ഇതിനു നമുക്ക് മുൻകരുതലയിട്ട് എടുക്കാൻ പറ്റുന്ന ഏക കാരണം അല്ലെങ്കിൽ ഏക കാര്യം